ഹലോ ഫ്രെഡീംസനല്ലേ ഒരു ഒരു നമ്മളുടെ മറ്റേ ഫോട്ടോഗ്രഫിയൊക്കെ എടുക്കുന്നതല്ലേ നമ്മുടൊരു വെഡ്ഡിങ് ഷൂട്ടും അതൊക്കെ ചെയ്യുന്ന ആളല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം ഞാൻ അപ്പോൾ എൻറ്റെയൊരു കല്യാണം ഉണ്ട് അത് അടുത്ത മാസമാണ് അപ്പോൾ അതിന് പ്രീവെഡ്ഡിങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം വിളിക്കുന്നതാണ് ആ അപ്പം ഫ്രീയായിരിക്കുമോ അപ്പം അടുത്ത മാസം നമുക്ക് അടുത്ത മാസം ഫെബ്രുവരി ഫെബ്രുവരി പതിനാലിനാണ് നമുക്ക് ഇത് ഡേയ്റ്റ് വന്നേക്കുന്നത് ഡേയ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ പറഞ്ഞോളൂ ഓക്കെ ഇപ്പം അപ്പം നമ്മുടെ പതിനാലിന് പ്രീവെഡ്ഡിങ് ഷൂട്ടാ അപ്പം പതിനാലിന് നമ്മൾ ഒരു എൻഗേജ്മെൻറ്റ് പോലെ നടക്കുന്നുണ്ട് അപ്പം ആ എൻഗേജ്മെൻറ്റിന് വേണ്ടി പതിനാലാം തീയതിയാണ് നമ്മൾ മറ്റേ ആൾക്കാരെ എല്ലാം ഇരുത്തി ഈ വീഡ്യോ കാണിക്കലും പരിപാടിയയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയാണ്

അപ്പോൾ എങ്ങനെ എങ്ങനെയൊക്കെയാ അതിറ്റെ റേയ്റ്റും കാര്യങ്ങളും അതൊക്കെ ആ നാല് ലക്ഷമോ

ആ മ് അത് ഈ ഡ്രോണ് ആണോ നമുക്ക് കുറച്ചുംകൂടെ വില കൂട്ടുന്ന പരിപാടി പക്ഷേ ആ കുറേ സാധനങ്ങൾ ഓ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾക്കാണോ വില കൂടുതൽ അതൊക്കെ ഡ്രോണ് പോലെ

ഓക്കെ ഓക്കെ പിന്നെ ആ ആരൊക്കെയുണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു ഷൂട്ടിങ്ന് ഒരാൾ മാത്രമായിട്ടാണോ നില്ക്കുന്നത് അതോ എത്ര വർക്കേസ്സ് ഉണ്ട് അതും ഒറ്റക്കണോ എല്ലാം ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പം ഓക്കെ ഓക്കെ പിന്നെ ഇതിൽ എന്ന് വരെ ഇന്ന് എന്നുവരെ എന്ന് വർക്കുണ്ടെന്ന് പറഞ്ഞത് പതിമൂന്ന് വരെയല്ലേ പതിമൂന്നോ പന്ത്രണ്ടോ അപ്പോൾ ഈ അപ്പം ഈ ഒരു ദിവസം കൊണ്ടുതന്നെ നമുക്ക് ഈ വർക്ക് എല്ലാം ചെയ്തുതീർക്കാൻ പറ്റും എന്നാണോ പറയുന്നത് വെഡ്ഡിങ്ങ് ഈ പരിപാടിയേ അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഈ ഫെബ്രുവരി വരെ നമുക്കിപ്പം സമയങ്ങളുണ്ടല്ലോ അപ്പോൾ അതിന്റെ ഇടയ്ക്ക് എപ്പഴേലുമൊക്കെ പറ്റുമായിരിക്കുമല്ലോ ഈ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ പ്രശ്നം എന്നതാന്ന് വെച്ചാല്ലേ ഇപ്പം നമുക്കിപ്പോൾ ഈ ഷൂട്ടിങ്ങിനും പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽപ്പോലും നമുക്കിപ്പം ഡ്രസ്സ് വേണമല്ലോ ഈ ഡ്രസ്സും അതിനേക്കായൊന്നും ഷൂ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല വർക്ക് ഇത് എപ്പോഴാണ് ഈ ഡേയ്റ്റ് എന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കാ ഒരു സമയം നോക്കിയങ്ങ് പർച്ചേസ് ചെയ്ത് എല്ലാം അങ്ങ് ഇതാക്കാമായിരുന്നു തീമെന്ന് പറയുമ്പോൾ ഒരു സിനിമാറ്റിക് പരിപാടിയാണ് നമുക്ക് വേണ്ടത് ജെസ്റ്റ് ഒരു ഒരു സിനിമാറ്റിക് ഫീലുപോലെ അങ്ങനെത്തെയൊരു

ഓക്കെ ഓക്കെ ആ ഹാ ഹാ ആ അത് അത് നോക്കാം നമുക്ക് നോക്കാം ആ പിന്നെ പിന്നെ ഇത്ര അല്ലേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലേ ഉള്ളൂ വേറെയെന്തെങ്കിലും അഡിഷനലായിട്ട് വല്ലതും ഉണ്ടോ ആ ആയിക്കോട്ടെ ആൻറ്റ് കോണ്ടാക്റ്റ് നമ്പര് ഇതുതന്നെയല്ലേ സെയിമ് അല്ലേ ഓക്കെ ശരി താങ്ക് യൂ